മലയാളം എന്നത് കേരളീയരുടെ ഭാഷയാണ് മറ്റുള്ളവരുടെ ഭാഷകൾ കേരളീയർക്ക് വളരെ എളുപ്പമായി സംസാരിക്കാം എന്നാൽ മലയാളം എന്നത് അത്ര എളുപ്പത്തിൽ മറ്റുള്ളവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നൊരു ഭാഷയല്ല മലയാളത്തിനും കേരളീയർക്കും അതിൻ്റേതായ പാരമ്പര്യവും തനതായൊരു ശൈലിയുമുണ്ട് മലയാളം സംസാരിക്കുന്നതിലൂടെ കേരളീയർക്ക് കേരളിയരുടെ പാരമ്പര്യത്തേയും സംസ്കാരത്തേയും പിടിച്ച് വെക്കാൻ സാധിക്കുന്ന ഒന്നാണ് ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ കേരളീയരുടെ പ്രധാനമായ ഒന്നാണ് മലയാള ഭാഷയിലൂടെ നമുക്ക് കേരളത്തെ ഒന്ന് വളരെ മനോഹരമാക്കാൻ സാധിക്കും മലയാളം സംസാരിക്കുന്നതിലൂടെ മലയാളം മറ്റുള്ളവരെ സംസാരിക്കാൻ പഠിപ്പിക്കുന്നതിലൂടെ കേരളത്തിൻ്റെ മഹിമ മറ്റുള്ളവരെ പേ പഠിപ്പിക്കുന്നതിലൂടെ നമുക്ക് നമുക്ക് മലയാളത്തെ ഉയർത്താനും കേരളത്തിൻ്റെ സംസ്കാരം ഉയർത്താനും സാധിക്കുന്നതാണ്